ഏതൊരു മനുഷ്യൻ്റെയും സാധാരണ ഒരു ആഗ്രഹങ്ങള് പോലെയാണ് ഒരു നീണ്ട ബൈക്ക് യാത്ര നടത്തിക്കഴിഞ്ഞാല് വളരെയധികം രസകരമായ ഒരു കാര്യമായിരിക്കും ഒരു നീണ്ട ബൈക്ക് യാത്ര നല്ല അടിപൊളിയായി വൈബായിക്കൊണ്ട് നമുക്കു പോകുന്ന പോകാവുന്നതാണ് ബൈക്ക് യാത്രയിലൂടെ എത്രത്തോളം എന്നുവച്ചാല് നാം ഒരു ബൈക്ക് യാത്രയ്ക്ക് എങ്ങനെയൊക്കെയാണു തയ്യാറെടുക്കുക എന്നുവച്ചാല് പലരും പല രീതിയിലായിരിക്കും ബൈക്ക് യാത്രകൾക്കു തയ്യാറെടുക്കുക കാരണം ഓരോ മനഷ്യരുടെ മെന്റാലിറ്റി അവരുടെ അവസ്ഥകളും മാനസിക നിലകളും അനുസരിച്ചായിരിക്കും ബൈക്ക് യാത്രകൾക്കു തയ്യാറെടുക്കുക എന്നുള്ളതു നാം പോകുന്ന സ്ഥലങ്ങള് സ്ഥലങ്ങൾക്കുചിതമായ രീതിയിലും അങ്ങനെ പല രീതിയിലും നമ്മളാ നാം ഓടിക്കുന്ന ബൈക്കുകൾ എന്നുള്ള പല പല കാര്യങ്ങളെയും നോക്കിക്കൊണ്ടായിരിക്കും നാം ബൈക്ക് യാത്രയ്ക്കുവേണ്ടി തയ്യാറെടുക്കുക ഉദാഹരണത്തിനു നാം വളരെയധികം ദൂരം പോകുന്ന ഒരു മഞ്ഞു പോലെ മഞ്ഞുവീഴ്ചയൊക്കെയുള്ള ഒരു സ്ഥലത്തുകൂടിയാണു പോകുന്നതെങ്കിൽ ആ രീതിയിലുള്ളൊരു തയ്യാറെടുപ്പായിരിക്കും കാരണം അത്യാവശ്യം നല്ല ഒരു ഒരു രസമുള്ളൊരു ബൈക്ക് ബൈക്ക് എടുത്തുകൊണ്ടത് നമുക്ക് ആവശ്യ ആവശ്യമായ ഡ്രസ്സുകളും നല്ല കട്ടിയുള്ള ബ്ലാങ്കറ്റ് പോലെയുള്ള ഡ്രസ്സുകളൊക്കെ എല്ലാം എടുത്ത് നല്ല അത്യാവശ്യത്തിനുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ആ ഒരു ഒരു രസമുള്ള രീതിയിലായിരിക്കും ബൈക്ക് യാത്ര ഉണ്ടാവുക നേരെ മറിച്ച് നം മറ്റൊരു സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് നമ്മൾ ചൂടുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നതെങ്കില് ആ രീതിയിലുള്ള ഡ്രസ്സുകളും അങ്ങനെ ഓരോ യാത്രകൾക്കും അതിന്റേതായ ഡ്രസ്സുകളൊക്കെ രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തിടും അങ്ങനെ വേറെ എല്ലാവരെയും അറിയിച്ചും അങ്ങനെ ഒരു രസകരമായ രീതിയിലായിരിക്കും ഓരോരുത്തരുടെ ബൈക്ക് യാത്രകൾ ഉണ്ടാവുക എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് കൊണ്ടുപോകാറുള്ളത് എന്നുള്ളതിനെ പറ്റി പറയുമ്പോള് ബൈക്ക് ഒരു ബൈക്കിന് അത്യാവശ്യമായ എല്ലാ സാധനവും വരും ബൈക്ക് കേടുപാട് വരുമ്പോൾ ബൈക്ക് കേടുപാട് വരുമ്പോൾ അതിന് ആവശ്യമായ ഒരു സാധനങ്ങളൊക്കെ ആവശ്യമായ സാധനങ്ങളൊക്കെയാണ് നമ്മള് എടുത്തു കൊണ്ടു പോകാറ് അതിൻ്റെ സ്പെയര് പാര്ട്സുകളും അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മളെടുത്തുകൊണ്ടുപോകും അപ്പോള് ഒരു ബൈക്ക് കേടു വന്നാൽ അതിന് എന്തൊക്കെയാണാവശ്യം സ്പെയര് പാർട്സ് അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് അതുപോലുള്ള സാധനങ്ങളും അതുപോലെ വേറെ നമ്മള് അത്യാവശ്യമായ ഭക്ഷണ സാധനങ്ങളും ഭക്ഷണ സാമഗ്രികൾക്കുമാണ് നമ്മള് ഉപയോഗിക്കാന് വേണ്ടി നമ്മള് എടുത്തു കൊണ്ടുപോകാറുള്ളത് അപ്പോ നമ്മൾ ഏതൊക്കെ രീതിയില് എങ്ങനെയൊക്കെയാണ് ബൈക്ക് യാത്ര എടുക്കുക എന്നുള്ള ചോദ്യത്തിനെ പറ്റി പറയുമ്പോൾ നാം ഹിമാലയം പോലുള്ള സ്ഥലങ്ങൾക്കും അല്ലെങ്കിൽ നാം അടുത്തുള്ളതായ കേരളത്തിൻ്റെ തന്നെ മറ്റു പല മൂലകളിലുമുള്ള യാത്രകൾക്കാണു നാം പോകുന്നതെങ്കിൽ ആ രീതിയിലുള്ളൊരു ഡ്രസ്സുകളും ബൈക്ക് ബൈക്കുകളൊക്കെയുമുള്ളൊരു സ്ഥലങ്ങളിലേക്കാണു നാം യാത്ര പോകുക അപ്പോള് എത്ര രീതിയിലൊക്കെയാണു നാം ദൂരങ്ങളിലേക്ക് നമ്മള് പോകുന്നു ആ രീതിയിലേക്കു നമ്മുടെ പരിഗണനകളും എല്ലാം ആൾക്കാരെല്ലാം അറിയിച്ചുകൊണ്ടും ഒരു രസത്തില് ബൈക്കില് കൊണ്ടുപോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും നാമെല്ലാവരും ബൈക്ക് യാത്ര നടത്താറുള്ളത് സാധനങ്ങളെൊക്ക കൂടി കൊണ്ടുപോകാറുള്ളതിനെ പറ്റി പറയുമ്പോൾ ഭക്ഷണ സാധനങ്ങളും വസ്ത്ര വസ്ത്ര ധാരണവും അതുപോലെയുള്ള നമ്മുടെ ആ നാം ഫോട്ടോയൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ ആവശ്യമായ സാധനങ്ങള് ക്യാമറകൾ കൂളിംഗ് ഗ്ലാസ്സുകൾ ഒരു ഷൂ പല രീതിയിലുള്ള ഷൂസുകൾ അങ്ങനെ പലവിധ ഐറ്റംസും പലരും ബൈക്ക് യാത്ര നീണ്ട ബൈക്ക് യാത്രകൾക്ക് അതിലേക്കു കൊണ്ടുപോകാറുണ്ട് അപ്പോള് ആ കാര്യങ്ങളെല്ലാവരും പലരും പല രീതിയിലാണ് ശ്രദ്ധിക്കാറ് ഓരോരുത്തരും അവരുടെ വൈബിനൊത്ത ആൾക്കാരുമായി ഒത്ത് പല രീതിയിലുള്ള കാര്യങ്ങളുമായി സംസാരിച്ചുകൊണ്ടാണു പോവാറ് അങ്ങനെ പല രീതിയിലുള്ള തയ്യാറെടപ്പുകളും പലരും ചെയ്യാറുമുണ്ട് എന്നാണ് എൻ്റൊരറിവ്